ഡാൻസ് ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ തൊട്ടേ ഡാൻസ് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കാനോ നൃത്ത വിദ്യാഭ്യാസം നേടാനോ സാധിച്ചിരുന്നില്ല കാരണം ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ എനിക്കിവിടെ അടുത്ത് നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകരോ ആരുമില്ലായിരുന്നു കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ എനിക്ക് പോയി പഠിക്കാൻ സാധിക്കുകയുള്ളായിരുന്നുള്ളൂ എൻ്റെ വീട്ടിൽ വണ്ടിയില്ലാഞ്ഞതുകൊണ്ടും സ്ഥിരമായി ദൂരെ പോയി പഠിക്കുന്നത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ബുദ്ധിമുട്ട് ഉള്ളതായതുകൊണ്ടും ഞാൻ ആരുടെയും കീഴിൽ നൃത്തം പഠിച്ചിട്ടില്ല പക്ഷെ ടി വിയില് കാണുന്ന ഡാൻസും അതല്ലാതെ ഞങ്ങൾ സ്കൂളിലൊക്കെ ഡാൻസ് പഠിക്കുകയും എനിക്ക് ഭയങ്കര താല്പര്യം ആയിരുന്നു എനിക്കിതൊരു കരിയർ ആക്കണമെന്നും പ്രൊഫഷണാക്കണമെന്നും വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്കത് പഠിക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഡാൻസൊരു പ്രൊഫഷനാക്കാൻ പറ്റിയില്ല പക്ഷെ ഡാൻസെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഡെയിലി മെയ് വഴക്കത്തിനുവേണ്ടി ഡാൻസ് കളിക്കുമായിരുന്നു ടി വിയിൽ കാണുന്ന ഓരോ സ്റ്റെപ്പാണെങ്കിലും ക്ലാസിക്കലാണെങ്കിലും വെസ്റ്റേണാണെങ്കിലും ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യും ഞാനെൻ്റെ എക്സസൈസായിട്ട് കണക്കാക്കുന്നതതുതന്നാണ് കാരണം എനിക്ക് ഡാൻസ് കളിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും അതുകൊണ്ടുതന്നെ ഞാൻ ഡെയിലി ഏതാ എക്സസൈസോ അല്ലാണ്ട് ഡാൻസോ കളിക്കുന്നത് പുതിയ പാട്ട് വരുമ്പോള് അതിലവര് യൂസെയ്യുന്ന സ്റ്റെപ്പുകളാണെങ്കിലും അതിപ്പോള് ക്ലാസിക്കലാണെങ്കിലും വെസ്റ്റേണാണെങ്കിലും ഞാനതേപോലെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ എല്ലാ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാ മത്സരത്തിൽ പങ്കെടുക്കുകയും എന്തേലും പരിപാടി വരുമ്പോള് ഡാൻസ് കളിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് തന്നെ എനർജിറ്റിക്കായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത് കാരണം നമ്മുടെ മൈൻന്റൊന്ന് റിലാക്സാകാനും സ്ട്രസ്ഫുളായിട്ടുള്ളൊരു ലൈഫാണ് ലീഡ് ചെയ്യുന്നതെങ്കില് ഒരു എൻറർടൈൻമെന്റ് ആണെങ്കിൽ ഒരു റിലീഫാണെങ്കിലും ഡാൻസിൽ നിന്നെനിക്ക് ലഭിക്കാറുണ്ട് അതുമാത്രമല്ലാതെ ഓരോ ഹുക്ക് അപ്പ് സ്റ്റെപ്പുകള് പഠിച്ചു വയ്ക്കുകയും വെറുതെ അത് കളിക്കുമ്പോഴും എനിക്കൊരു ഹാപ്പിനെസ്സ് കിട്ടാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളും ഡാൻസ് കളിക്കാറുണ്ട് സൊ ഞങ്ങള് മിക്കപ്പോഴും ഒരുമിച്ച് ഡാൻസ് കമ്പനിയിലാണെങ്കിലും അല്ല മറ്റു പരിപാടികൾക്കാണെങ്കിലും ഡാൻസ് കളിക്കാറുണ്ട് ഡാൻസെനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബി എന്താണെന്നു വെച്ചുകഴിഞ്ഞാൽ ഡാൻസ് തന്നെയാണെന്ന് പറയും കാരണം എനിക്ക് ഡാൻസ് കളിക്കാൻ ഒരുപാടൊരുപാടൊരുപാടിഷ്ടമാണ് കുഞ്ഞിലേതൊട്ട് ഡെയ്ലി ഡാൻസ് കളിക്കുന്നതുകൊണ്ട് എൻ്റെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിളായിട്ടെനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് സാധാരണ രീതിയില് എക്സസൈസ് ചെയ്യുന്നത് പോലെ ഒരു ഡാൻസിങ് എക്സസൈസ് പോലെ തന്നെ വെയിറ്റ് ബാലൻസ് ചെയ്യാനും കലോറീസും ഇതൊക്കെ കുറയ്ക്കാനും സാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി അതുകൊണ്ടുതന്നെ തന്നെ ഡാൻസിങ് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഡാൻസ് ഈസ് മൈ ലൈഫ് എന്ന് വേണമെങ്കില് ഞാൻ പറയും ഇപ്പോഴും എനിക്കു വേണമെങ്കില് ഡാൻസിങ് കണ്ടിന്യൂ ചെയ്യാം പ്രൊഫഷണലായിട്ട് പക്ഷെ വർക്കിൻ്റെ ഇടയിലുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് പ്രൊഫഷനാക്കി മാറ്റാത്തത് എന്നാലും ഡാൻസ് കളിക്കുന്നത് എനിക്കൊരുപാടിഷ്ടമാണ്